ആ കൂടുതലായിട്ടും പ്രദേശികമായിട്ടുള്ള ഭാഷയിൽ രേഖകൾ വേണം എന്നു തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം വിദ്യാഭ്യാസം കുറവുള്ള ആളുകൾ കൂടുതലുണ്ട് ലിറ്ററേച്ച് റേറ്റ് എത്ര കൂടുതലാണ് കേരളത്തിലെന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസം വളരെ കുറവുള്ള ആളുകളും നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മാതൃഭാഷയിൽ അല്ലെങ്കിൽ പ്രാദേശികമായ ഭാഷയിൽ രേഖകൾ വേണമെന്ന് എനിക്ക് താൽപര്യമുണ്ട് അതുകൊണ്ടുതന്നെ ബാങ്കിങ്ങ് മേഖലയിലുള്ള പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ ആഗ്രഹം